നമ്മളിപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും മെട്രോയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മള് ഗതാഗത തടസം നിയന്ത്രിക്കാനായിട്ട് മെട്രോകളാണ് എല്ലായിടത്തും കൊണ്ട് വരുന്നത് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും മെട്രോ ആവശ്യമുള്ളതായിട്ട് കാണുന്നില്ല ചില സംസ്ഥാനങ്ങളില് ഗതാഗതം വളരെ രൂക്ഷമായ സ്ഥലങ്ങളിൽ നമുക്ക് ഫ്ലൈ ഓവറുകൾ അതായത് ഓവർ ബ്രിഡ്ജുകളാണ് നമുക്ക് കൂടുതലും വേണ്ടത് നമുക്ക് തിരക്കുള്ള കുറച്ച് തിരക്ക് ഒരു നമുക്ക് നിയന്ത്രിക്കാനാവുന്നതിലും കുറച്ച് കൂടെ തിരക്ക് വരുന്നയിടത്ത് മാത്രമേ നമുക്ക് മെട്രോയുടെ ആവശ്യങ്ങള് ഉള്ളു അല്ലാത്ത ഇടത്തൊക്കെ നമുക്ക് മെട്രോയ്ക്ക് പകരം ഫ്ലൈ ഓവറുകൾ അതായത് ആകാശ പാതകളാണ് കൂടുതലും വരണ്ടത് അതാകുമ്പം നമുക്ക് കുറച്ച് വാഹനങ്ങൾ സാധാ നോർമ്മൽ റോഡുകളിലൂടെയും ബാക്കി വരുന്നത് വൺ വേ ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് സൈഡിലൂടെയോ ആകാശ പാതയിലൂടെ വിടുവാണെങ്കിൽ നമുക്കത്രയും ഗതാഗത തടസം നിയന്ത്രിക്കാനാവുന്നതാണ്